ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എടക്കൽ ഗുഹ ലക്കിടി ചെംമ്പ്ര ബാണാസുര സാഗർ ഡാം സൂചിപ്പാറ വെള്ളച്ചാട്ടം കുറുവാദ്വീപ് വയനാട് വൈൽഡ് ലൈഫ് പക്ഷിപാതാളം കാന്തൻപ്പാറ വെള്ളച്ചാട്ടം കൂക്കൂട് ബാണാസുര കാരാമ്പുഴ ഡാം നീലിമല പിന്നെ പഴശ്ശി പഴശ്ശി പാർക്ക് ഇതൊക്കെയാണ് വയനാട് ജില്ലയിലെ പ്രധാന ഉല്ലാസ പ്രവർത്തനങ്ങളും വിനോദ പരിപാടികളും പിന്നെ അതു പോരാണ്ട് നമുക്ക് ഒരുപാട് കാണാനും ഒരുപാട് സഞ്ചരിക്കാനുമുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വായനാട്ടിൽ ഉണ്ട് പിന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടം തോൽപ്പട്ടി വന്യജീവി സങ്കേതത്തിൽ സാഹസിക പരിപാടികൾ പിന്നെ വന്യജീവി ഉള്ള സ്ഥലത്തിൽക്കൂടി വണ്ടികൾ ഓഫ് റോഡ് പോകുന്നതും പിന്നെ മൃഗങ്ങളെ കാണാനായിട്ട് മാത്രം ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് പിന്നെ കാണാൻ തന്നെ ഒരുപാട് ഉണ്ട്